ഞങ്ങളുടെ പ്രദേശത്ത് ബിസിനസ്സൊക്കെ തുടങ്ങാൻ വേണ്ടി വാഴയ്ക്ക അപ്പം ശർക്കര വരട്ടി അങ്ങനെ ഒക്കെ പ്രകൃതി രമണീയമായ കുറേ പലഹാരങ്ങളൊക്കെ എനിക്ക് ബിസിനസ്സിന് കൊണ്ടുവരാൻ പറ്റും ഞാൻ അങ്ങനെ ഒരെണ്ണം തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ബിസിനസ്സ് ഇങ്ങ് ഡെവലപ്പ്മെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് ഇനി ഇപ്പം ആ ഭാവിയിലേക്കിനി തുടരുമ്പത്തേന് ഇവ ഈ ഈ ഇതൊന്നും കിട്ടാതൊക്കെ വരും അപ്പം അതിന് വേണ്ടി അപ്പോൾ തുടങ്ങാം എന്നൊക്കെ വിചാരിക്കുന്നു ഈ വാഴയ്ക്കാ അപ്പം ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയുള്ള വാഴയ്ക്ക അപ്പം ബജി ബജിക്കടയൊക്കെ ഇടുവാന്നേ നല്ലൊരു ബിസിനസ്സ് ഒക്കെയാണ് അത് പിന്നെ വാഴയിൽനിന്ന് തന്നെ കിട്ടുന്ന കുറേ വിഭവങ്ങൾ നമുക്കുണ്ട് ഉപ്പേരി ചക്കവരട്ടി ഇതൊക്കെ സദ്യക്കൊക്കെ പ്രധാനമാണ്